ഞങ്ങൾ കൊല്ലം ജില്ലയിൽ ഒരു ഗ്രാമപ്രദേശത്താണ് ഞങ്ങൾ താമസിക്കുന്നത് വർത്തമാധ്യമങ്ങളൊക്കെ ഞങ്ങളുടെ പ്രദേശത്തൊക്കെ വലിയ രീതിയിൽ ചലനം സൃഷ്ടിക്കുന്നില്ല ഗ്രാമപ്രദേശമായതു കൊണ്ട് അത് ആർക്കും വാർത്താ മാധ്യമങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും വരുന്നില്ല എം കാറ്റും മഴയും ഒക്കെ വന്ന് ഞങ്ങളുടെ കറണ്ട് പോകുന്നുണ്ട് ഇതൊന്നും വലിയ വർത്തയായിട്ട് പുറത്തു വരുന്നില്ല ഗ്രാമപ്രദേശമായതു കൊണ്ടായിരിക്കാം എന്തോ എന്തായാലും ഞങ്ങൾക്കിത് ഇച്ചിരിബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ മരണങ്ങൾ റോഡ് ആക്സിഡൻറ്റ് ഇതൊക്കെ വരുമ്പോഴത്തേനും തന്നെ നമുക്ക് പെട്ടെന്നു തന്നെ വാർത്തയിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നേ അന്നേരം മൊബൈലിലൂടെ ആരാലൊക്കെ എടുക്കുന്ന അത് നമ്മൾ വാർത്താ ചാനൽ വഴി നമുക്ക് അതു കിട്ടുന്നില്ല കുറവാണ് ഗ്രാമപ്രദേശമായതുകൊണ്ട് മാധ്യമങ്ങൾ വേണ്ട രീതിയിലൊന്നും നമ്മുടെ പ്രദേശത്തെ കാര്യങ്ങളൊന്നും പുറത്തു വരുന്നില്ല പ്രദേശത്തെ മാ ജില്ലയിലുള്ള കാര്യങ്ങളൊക്കെ അ എന്നതു പോലെയല്ല നമ്മുടെ ഗ്രാമപ്രദേശത്തൊക്കെ ഇച്ചിരി കൂടെയൊക്കെ വാർത്താ ചാനലുകൾ നമ്മുടെ ഗ്രാമപ്രദേശത്തൊക്കെ ഒന്നു കൂടി കവർ ചെയ്യണം അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മരണങ്ങൾ ആക്സിഡൻറ്റുകൾ പിന്നേ രോഗം കൂടുതൽ രോഗികളൊക്കെ ആയി കിടക്കുന്നവർക്കു വേണ്ടുന്ന സഹായങ്ങളൊക്കെ വാർത്താ ചാനലുകൾ വഴിയാകുമ്പോൾ ഒരുപാട് സഹായങ്ങളൊക്കെ കിട്ടാവുന്ന സാദ്ധ്യതകളും കാണും പക്ഷേ ഞങ്ങളുടെ പ്രദേശത്തെ സംബന്ധിച്ച് അത്രയും കാര്യങ്ങൾ വരുന്നില്ല ഇന്നെന്നു പറഞ്ഞു കഴിഞ്ഞാൽ വാർത്തയുടെ കാര്യങ്ങൾ പുറത്തു വരാൻ തക്ക വണ്ണമുള്ള രീതിയിൽ നമ്മുടെ പ്രദേശത്തെ പഴയ രീതിയിൽ മുന്നോട്ടു കൊണ്ടു പോകാനായിട്ടു പറ്റുന്നില്ല ഗ്രാമപ്രദേശത്തുള്ളവർക്ക് ഇച്ചിരികുടെയൊക്കെ വാർത്താ ചാനലുകൾ കാര്യ കാര്യമായിട്ടുള്ള വർത്തകളൊക്കെ കൊടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരഭിപ്രായം കവറേജ് വരുന്നില്ല ഒരാക്സിഡന്റൊക്കെ പറ്റിയാൽ പെട്ടെന്നൊക്കെ അതു പുറത്ത് വരാനൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ പിന്നെ മറ്റു കാര്യങ്ങൾ വഴിയാണ് നമ്മൾ അറിയുന്നത് അല്ലാതെ മാധ്യമങ്ങളിൽ കുടി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അങ്ങ് ഗ്രാമപ്രദേശമാകുമ്പോഴത്തേനും അവിടെ വന്നു അതു കവർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട് അതു പോരാ എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പിന്നേ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽക്കൂടി വരേണ്ട കാര്യങ്ങൾ പിന്നെ എന്തെങ്കിലും പ്രത്യേകമായുള്ള വാർത്തകൾ ഇതൊക്കെ നമ്മുടെ ഗ്രാമ ഉൾപ്രദേശമായതു കൊണ്ടായിരിക്കാം നമുക്കതിന് പെട്ടെന്ന് അതിനു കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട് നമ്മുടേ പ്രദേശത്തേ സംബന്ധിച്ച് വലിയ ഇതായിട്ടുള്ള കാര്യങ്ങളല്ല റോഡുകളായാലും അതിനെപ്പറ്റിയും വേണ്ടുന്ന സൗകര്യങ്ങളില്ലാത്ത ഒരു പ്രദേശം ആയതുകൊണ്ടായിരിക്കാം ജില്ലയിലുള്ള ഇതാന്നെങ്കിലും കൊല്ലം ജില്ലയിൽ ആന്നെങ്കിൽത്തന്നെ ഉൾപ്രദേശമായതുകൊണ്ടും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളാണ് എന്നാൽ വലിയ ഇതില്ലാത്ത രീതിയിലും പോകുന്നു അങ്ങനൊക്കെയാണ് പിന്നേ എന്തെങ്കിലും പ്രസ്ഥാനങ്ങളുണ്ടാകും അവിടെ എന്തെങ്കിലും കോറികളോ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി അതൊന്നും ചാനലുകാർ പുറത്തു കൊണ്ടുവരുന്നില്ല അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ച് ഇതൊക്കെ പുറത്തു കൊണ്ടു വരേണ്ട കാര്യങ്ങൾ അതു വാർത്താ ചാനലുകാർ ഇതൂ കൂടി കവറേജ് ചെയ്ത് നമ്മുടെ പ്രദേശത്തേ ഇച്ചിരി കൂടി മുന്നോട്ടു കൊണ്ടു പോകണമെന്നൊക്കെയാണ് എൻ്റെ ഒരഭിപ്രായം വാർത്തകൾ വരുമ്പോൾ നമ്മുടെ പ്രദേശത്തെ മാത്രം മാറ്റി നിർത്താതെ എല്ലാ കാര്യങ്ങളും മുന്നോട്ടു കൊണ്ടു പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അതു പ്രത്യേകമായിട്ട് ചാനലുകാരായാലും അത് ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ മുന്നോട്ട് ഗ്രാമപ്രദേശത്തെ ഉൾപ്രദേശത്തെ ഒക്കെ ഉൾക്കൊള്ളിച്ചു വേണം കാര്യങ്ങൾ മുന്നോട്ടു കൊണ്ടു പോകാൻ ഉള്ള അഭിപ്രായമാണ് പിന്നെ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാം ഒന്നും നമുക്ക് കിട്ടുന്നില്ല പിന്നെ ഒരു കാറ്റോ മഴയോ വന്നാൽ പെട്ടെന്ന് കറണ്ട് പോകും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ പ്രദേശത്തേ സംബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അതിനൊക്കെ എന്തെങ്കിലും നടപടി ഉണ്ടാകുന്നത് നല്ലതാണ് കാരണം പിന്നെ വലിയൊരു ചെറിയൊരു കാറ്റു വന്നാലും ഉടനെ കറണ്ട് പോകും അത് മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല കാരണം പിന്നെ നമ്മൾ ഏതു കാര്യമാന്നേലും നമ്മുടെ പ്രദേശങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഒരു കാര്യമൊക്കെയുണ്ടെങ്കിൽ അതൊന്നും നമ്മുടെ വാർത്താ ചാനലുകാർ അതു കുടുതലായിട്ട് പബ്ലിസിറ്റി കൊടുക്കുന്നില്ല പിന്നെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും അതിനു പെട്ടെന്നൊക്കെ ഒന്നു കൊണ്ടു പോകാനും ദുര തിരുവനന്തപുരത്തൊക്കെ കൊണ്ടു പോകാനൊക്കെയുള്ള ബുദ്ധിമുട്ടും സൗകര്യങ്ങളുമൊക്കെ കുറവാണ്